ഞാനൊരു ഹെഡ്സെറ്റ് ആയിരുന്നു മേടിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചത് എന്നിട്ട് ഇപ്പം ഡിസ്അഡ്വാൻഡേജ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് പറയാൻ ഒന്നുമില്ല പക്ഷേ എങ്കിലും നമ്മൾ ഇങ്ങനെ ചെവിയിൽ വയ്ക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ബസ്സിൽ ഒക്കെയാണ് ചെവിയിൽ വെക്കുന്നതെങ്കിൽ നമ്മുടെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൂടെ അത് ചിലപ്പോൾ കാതിന്ന് നമ്മുടെ ചെവിയിൽ നിന്നത് വീണു പോകും ചിലപ്പോൾ ഒന്നു വീണു പോകും അത് വെക്കുമ്പോൾത്തേക്കും അത് അടുത്തത് വീണു പോകും അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ അത് തൃശ്ശൂർ പോയപ്പോ ആയിരുന്നു ഞാൻ അത് യൂസ് ചെയ്തത് ഇത് ഞാൻ അങ്ങനെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെവി വേദന എടുക്കും ഓവർ വെക്കുമ്പോൾ നമ്മൾ നമ്മള് ഇങ്ങനെ ഉള്ളിലോട്ട് കേറ്റി വയ്ക്കുമ്പോൾ ചെവി വേദന എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് വെച്ച് പിന്നെ ഞാൻ അങ്ങനെ അത് യൂസ് ചെയ്തിട്ടില്ല അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി ചെവി വേദന